എൻ്റെ സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ ആഘോഷിക്കുന്ന ഒരു മതപരമായ ആഘോഷ പരിപാടി പ്രധാനമാണ് ക്രിസ്മസ് അതായത് ക്രിസ്ത്യാനികൾക്കിടയിൽ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മത ആ മതപരമായ ഒരു ആഘോഷമാണ് ക്രിസ്മസ് അത് ക്രിസ്ത്യാനികൾക്ക് ഇടയിൽ മാത്രമല്ല ഹിന്ദുക്കൾക്ക് ഇടയിലും ചെറിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനികൾക്ക് ഇടയിലാണെങ്കിൽ അവർക്ക് ആരാധന സംബന്ധമായ മതപരമായ രീതിയിലുള്ള ആഘോഷത്തിനാണ് അവർ പ്രാധാന്യം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആ ദിവസത്തിന് തുടക്കം ആയിട്ട് ക്രിസ്മസ് വരെ ഇരുപത്തി അഞ്ച് ദിവസം ഡിസംബർ ആദ്യം മുതൽ ഇരുപത്തി അഞ്ച് ദിവസത്തെ നൊയമ്പ് എടുത്താണ് ക്രിസ്മസ്സിനായിട്ട് ഒരുങ്ങുന്നത് ആ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോവുകയും അതുപോലെ ക്രിസ്മസ്സിന് അന്ന് പ്രത്യേകമായി മുടക്കാതെ രാത്രി ആരാധനയ്ക്കും പാതിരാ കുർബ്ബാനയ്ക്കും പകലുള്ള ചടങ്ങുകൾക്കും ഒക്കെ ക്രിസ്മസ്സിന് പള്ളിയിൽ പോകാറുണ്ട് അത് പോലെ അത് ഇരുപത്തി അഞ്ച് ദിവസത്തെ നൊയമ്പ് എടുക്കുന്നത് കൂടാതെ ഉള്ളതാണ് അതായത് ക്രിസ്മസ്സിൻ്റെ അന്ന് മാത്രം പ്രത്യേകമായി ആ ഒരു വർഷത്തിൽ പ്രധാന ദിവസത്തിലാണ് മവായ പാതിരാ കുർബ്ബാന നടത്തുന്നത് അതുപോലെ തന്നെ ഡിസംബർ മാസം അതായത് നൊയമ്പ് തുടങ്ങുന്ന ദിവസത്തിൽ തന്നെ നക്ഷത്രങ്ങൾ തൂക്കുകയും അതുപോലെ പുൽകൂട് ഉണ്ടാക്കുകയും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് വീടുകളിൽ ആണെങ്കിൽ ആ ദിവസങ്ങളിൽ എന്ന അതായത് നോൺ വെജ് ഉപേക്ഷിച്ചു നൊയമ്പ് എടുക്കുന്ന പതിവ് രീതിയാണ് ഉള്ളത് അപ്പോൾ ക്രിസ്മസ്സിൻ്റെ അന്ന് നൊയമ്പ് വീടുന്ന ഒരു ചടങ്ങുണ്ട് അതായത് അന്ന് മാത്രമാണ് ഇറച്ചിയും മീനും മറ്റുള്ള നോൺ വെജ് സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് നൊയമ്പ് വീടുന്ന ഒരു പതിവാണ് ക്രിസ്ത്യാനികൾക്ക് ഇടയിലുള്ളത് അതുപോലെ കുട്ടികൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും അപ്പോൾ ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും പിന്നെ പുൽകൂടുണ്ടാക്കുകയും അതുപോലെ തന്നെ കെയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്മസ്സിനുള്ള കെയ്ക്ക് മറ്റു സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കെയ്ക്ക് കിട്ടും എങ്കിൽ പോലും ക്രിസ്മസ്സിൻ്റെ കെയ്ക്ക് അതിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇടയിൽ കുഞ്ഞാ അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട് ക്രിസ്മസ്സിന് അത് മറ്റു ജാതിക്കാരാണെങ്കിലും മറ്റു മതസ്ഥരുടെ ഇടയിലും അങ്ങനെ കുറേ ചിലർ ഹിന്ദൂസ്സിന് ഇടയിൽ ക്രിസ്മസ് ട്രീ തൂക്കും അപ്പം നക്ഷത്രം തൂക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും ആയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇയിൽ മാത്രമല്ല മറ്റു മതസ്ഥരുടെ ഇടയിലും ക്രിസ്മസ് ആഘോഷിക്കുന്നതായി കണ്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് എന്നുള്ളത് ഭക്ഷണത്തിന് അന്നത്തെ ദിവസത്തെ ഭക്ഷണത്തിന് പ്രത്യേക ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് മെയിനായിട്ട് പ്രധാനമായിട്ട് ഇറച്ചിയും മീനും കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അനാ വിഭവം പല തരത്തിലുള്ള വിഭവങ്ങൾ വീടുകളിൽ ഉണ്ടാക്കാറുണ്ട് ആ വീടുകളിൽ പാചകം ചെയ്യാറുണ്ട് പാതിരാ കുർബ്ബാനയും പിന്നെ പള്ളികളിലെ ആ ചടങ്ങുകൾക്ക് ഒരാളും ഒരു ക്രിസ്ത്യാനി ആയിരിക്കും ഒരാളും അതിന് മുടക്കം വരുത്താറില്ല